എനിക്ക് ഈ കാശ്മീർ വരെ സൈക്കിൾ ചവിട്ടി പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ട് നമുക്ക് സൈക്കിൾ മുഖാന്തരം പിന്നെ റോഡ് വഴി കാശ്മീർ വരെ എത്താൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ ഉണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സ്ഥലം കാശ്മീരിൽ പോകുക നമുക്ക് എന്താ ഒരു റൈഡർ റൈഡർ ആയി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരച്ചീവാണ് നമ്മൾ സൈക്കിൾ മുഖാന്തരം നമ്മൾ അത് പൊലൂഷൻ ഇല്ല കാര്യങ്ങൾ ഒന്നുമില്ല നമുക്ക് അവിടെ എത്താൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാശ്മീരിൽ പോകാൻ നമുക്ക് ഇവിടെ കേരളത്തിൽ ആണെങ്കിൽ സൈക്കിളിൽ നല്ലതാണ് നമ്മുടെ ബോഡിക്ക് എല്ലാറ്റിനും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാശ്മീരിൽ പോകണം കാശ്മീർ വരെ സൈക്കിൾ ചവുട്ടി ഒറ്റ ദിവസം കൊണ്ട് ഒന്നും എത്താൻ പറ്റില്ല മാസങ്ങൾ എടുക്കും നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ നാലും അഞ്ചും ആറും മാസം എടുക്കും മിനിമം ഒരു ആറ് മാസം എങ്കിലും വേണ്ടി വരും നമ്മൾ അപ്പം എനിക്ക് സൈക്കിളിൽ പോകുന്നത് ഇഷ്ടം ആണ് കാശ്മീരിൽ പോകാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നതും